ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാർ ഇനത്തിൽ ഇല്ലാത്ത ഘടകങ്ങളെന്നു പറയുമ്പോഴ്ത്തേക്കും നമ്മുടെ ഈ കുടുംബശ്രീ ഇൻറ്റിവീജ്വലായിട്ടു ചെയ്യുന്നവരുമുണ്ട് അല്ലാണ്ട് ചെയ്യുന്നവരുമുണ്ട് അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും പൊതു സേവനങ്ങളെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ നടന്നു വരുന്നത് ഓരോ ഓരോ എന്നുവെച്ചാൽ ഒരു ഒരു വ്യക്തിയുടെ അഭിപ്രായം അതു തന്നെയാണ് ബാക്കിയെല്ലാവരും കേൾക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിപ്പോൾ കണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം കുറവ് അങ്ങനെയൊക്കെ ആണ് കണ്ടു വരുന്നത് അങ്ങനെയൊക്കെയാണ് അതുപോലെ പരിസ്ഥിതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം വീട്ടിൽ തന്നെ മാസത്തിൽ ഒരിക്കൽ പ്ലാസ്റ്റിക് ഒക്കെ വന്നാളുകൾ എടുത്തോണ്ട് പോകാറുണ്ട് അത് അൻപത് രൂപ വെച്ച് അതിന് കൊടുക്കും കൊടുക്കും കൊടുക്കണം എല്ലാവരും അത് അൻപത് രൂപ വെച്ച് കൊടുക്കണം പിന്നെ കുറ്റങ്ങളായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളുടെ പരാതികളും ഒന്നും ഇവർ പരിഗണിക്കുന്നില്ല എന്നു തന്നെയാണ് എനിക്ക് പരാതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിതാണ് പറയാനുള്ളത് അവരുടെ എന്ത് അടിസ്ഥാന സൗകര്യമായത് ഇൻഫ്രാസ്ട്രക്ക്ചെർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലും അവർ അത് പരിഗണിക്കുന്നില്ല അപ്പം മണ്ണും വീടും പദ്ധതി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നാലും അവരൊരുപാട് സ് നേ സമയങ്ങൾ തന്നെ ഈ ഓരോ ഇടത്തും ഇറങ്ങിയും കയറിയും ഒക്കെ നടന്നിട്ട് നടന്നാണ് അവർക്ക് ഒരു വീട് തന്നെ അത് വെക്കാനുള്ള ഒരേ പൈസയൊക്കെ കിട്ടുന്നത് അതിനുവേണ്ടി ഒരുപാടാൾക്കാർ അവർ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് പൊതു സേവനങ്ങൾ പരിസ്ഥിതീകരിച്ച് ആരോഗ്യ സംബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പോഴ്ത്തേക്കും ആരോഗ്യ ഹെൽത്തിൽ നിന്നും ആൾക്കാർക്ക് ഈ മറ്റേ ഗുളികകളും അങ്ങനെ അയൺ ഗുളിക അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്തിന്ന് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്